വാർത്താ വ്യവസായത്തിൽ സാങ്കേതികവിദ്യ ഏത് വിധത്തിലാണ് സഹായിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സംഭവം അറിയുന്നത് നാളെ ആയിരിക്കും അപ്പോൾ ചിലർ അതായത് പത്രം വഴിയായിരിക്കും നമ്മളറിയുന്നത് ചിലർ പത്രം വായിക്കത്തില്ല അപ്പോൾ അറിയാനും പോകുന്നില്ല സാങ്കേതികവിദ്യ വഴി നമുക്ക് അതായത് ഇപ്പം നടന്ന ഇപ്പം നടന്ന സംഭവം ഇപ്പത്തന്നെ നമുക്കറിയാം അതായത് ഓൺലൈനിൽക്കൂടെ യൂട്യൂബിൽക്കൂടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെത്തെയുള്ള കുറേ സോഷ്യൽ മീഡിയസിലൂടെ നമുക്ക് എപ്പം നടന്നതാണെങ്കിലും സ്പോട്ടിൽതന്നെ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അതാണ് വാർത്താവ്യവസായത്തിൽ സാങ്കേതികവിദ്യ സഹായിച്ചിട്ടുള്ളത് അതായത് സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പ അപ്പം തന്നെ നമ്മളറിയും സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നെങ്കിൽ പത്രം അടിച്ച് വരുന്ന ആ സമയത്ത് അതായത് ഇന്ന് നടന്ന സംഭവം നാളെയും നാളെ നടക്കുന്ന സംഭവം നാളെ കഴിഞ്ഞേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പോൾ കുറേ സമയത്തിന് വ്യത്യാസമുണ്ട് ചിലർ പത്രം വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും അപ്പോൾ കുറേ പേര് അറിയാതെ പോകും വാർത്തേനെപ്പറ്റി പക്ഷേ സാങ്കേതികവിദ്യ വന്നത് മൂലം നമുക്ക് കുറേ വാർത്തകളറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വാർത്താവ്യവസായത്തിൽ സാങ്കേതികവിദ്യ നല്ല ഒരു കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്